നമ്മുടെ ജീവിതത്തിൽ കളികൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് കുട്ടികളാണേലും മുതിർന്നവരാണേലും എന്തെങ്കിലുമൊക്കെ കളികളിൽ ഏർപ്പെടുന്നത് അവർക്ക് മാനസിക ഉല്ലാസം നല്കാൻ വളരെ അധികം സഹായിക്കും പണ്ടൊക്കെ കുട്ടികളിപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുറ്റത്തെപ്പോഴും കളിക്കുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഒത്തുകൂടി കളിക്കുക അങ്ങനെയൊക്കെ ഒരു കാരണം അന്ന് ഒന്നാമത് ഈ എന്താണ് മീഡിയ ഇപ്പം ടെലിവിഷൻ തന്നെ അങ്ങനെ വീടുകളിലൊക്കെ കുറവാണ് അപൂർവ്വം വീടുകളിലൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലൊന്നും ആൾക്കാർ ഇരിക്കുന്നത് കുറവാണ് ഇപ്പോൾ അങ്ങനെയല്ല ഒന്നാമത് എല്ലാവരും ടി വിയുടെ മുമ്പിലാണ് എപ്പോഴും അപ്പോൾ അങ്ങനെ കളിക്കാനൊ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും ആർക്കും താൽപര്യമില്ല പിന്നെ ഇപ്പം പ്രധാനം ഇപ്പം കുട്ടികളെന്ന് പറഞ്ഞാൽ ടി വിയും മാറി ഫോണിലേക്കായി അവർക്ക് ഇങ്ങനെ ഓടി കളിക്കാനും ഒന്നും താൽപര്യമില്ല പക്ഷേ അപൂർവ്വം കുട്ടികളുണ്ട് ഇപ്പോഴും ഇപ്പം ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് അല്ലെങ്കിൽ എന്താണ് പറയുക കബഡി അങ്ങനെയൊക്കെ കളികളെ മുന്നോട്ട് കൊണ്ട് പോകുന്ന ചില കുട്ടികളുണ്ട് അത് ശരിക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ കടന്ന് കയറ്റം മൊത്തത്തിൽ തന്നെ ആളുകളുടെ ജീവിതത്തെ തന്നെ തകിടം മറിക്കുന്ന ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുട്ടികളെ ഒക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യത്തിന് ശരീരത്തിനൊക്കെ ഓടി കളിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുമാവായിട്ട് നമ്മൾ ഒരു ബന്ധം നില നിർത്താൻ കുട്ടികളൊക്കെ കളിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഓടി കളിക്കുന്നത് ശരീരത്തിന് നല്ലതാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ കുട്ടികളായിട്ടൊക്കെ ഒരു ബന്ധം ഉണ്ടാവാൻ അത് നല്ലതാണ് എന്നൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ വേറെ ഒരു കാര്യം എന്താണ് ചോദിച്ചാൽ ഇപ്പം ആൾക്കാർക്ക് പൊതുവെ ഒരു അടുത്ത വീട്ടിലുള്ളവരങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല അവരവർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക അത്രയേ ഉള്ളൂ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല പണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ കുറച്ച് കൂടെ അടുപ്പം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അയിൻ്റെ പ്രധാന ഇത് എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം